ഇപ്പോൾ നമ്മള്ള് ഒരു മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകേണ്ട പല സാധനങ്ങളുണ്ട് ഇപ്പോൾ ഉൾകടലിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് കൂടുതൽ ഡീസലും കാര്യങ്ങളും അല്ലെങ്കിൽ ഡീസൽ വണ്ടി ആണെങ്കിൽ ഡീസൽ ബോട്ടാണെങ്കിൽ ഡീസൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ പെട്രോൾ ബോട്ടാണെങ്കിൽ പെട്രോൾ വെള്ളം വെള്ളം നമ്മൾ ആവശ്യത്തിലേറെ കൊണ്ടു പോകണം കാരണം നമുക്ക് മീൻ കിട്ടാതെ തിരിച്ചുവരുന്നത് ഒരു കാന്നാ കാരണമായിരിക്കില്ല കാരണം നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പം അവിടെ നിൽക്കേണ്ടിവരും അപ്പോൾ ആവശ്യത്തിലേറെ നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ കരുതണം അപ്പോൾ അതിൽ നിന്ന് നമ്മക്ക് എന്ത് മനസ്സിലാക്കാം അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒന്നും കിട്ടില്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കരുതുക പിന്നെ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു കത്തിയും കാ ഇതൊക്കെ ആവശ്യമാണ് ഇപ്പോൾ നമ്മളെ എന്തെങ്കിലും സ്രവോ മീനോ ഇതൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു കത്തിയോ എന്തെങ്കിലും നമ്മൾ കയ്യിൽ കരുതണം പിന്നെ വല കരുതണം നല്ലൊരു വലയായിരിക്കണം നമ്മൾ എപ്പോഴും കരുതുന്നത് കീറിപ്പോയ വലയൊക്കെ കരുതി കഴിഞ്ഞാൽ ചിലപ്പം മീനൊക്കെ ചിലപ്പോൾ പുറത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നല്ല ഒരു വലയും കാര്യങ്ങളൊക്കെ കരുതുക നല്ലൊരു ബോട്ടായിരിക്കണം ഓട്ടയുള്ള ബോട്ട് ഒന്നും നമ്മൾ എടുത്തിട്ട് പോകാണ്ടിരിക്കുക ഇക്കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിൻ്റെ എൻജിൻ ഒക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ക്ഷമമായിട്ടുള്ള എൻജിനാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ കോ കഴിഞ്ഞ വർഷങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന്നൊക്കെ വളരെയധികം പറ്റിയ അബദ്ധം ആയിട്ടുള്ള എഞ്ചിന്നൊക്കെ ആയിരുന്നു ഇറങ്ങി കൊണ്ടിരുന്നത് ഇപ്പോൾ അതിൽ നിന്നും നല്ല രീതിയിലുള്ള വ്യത്യാസമൊക്കെ വന്ന് നല്ല രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ബോട്ടും ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും